മലബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ആര്ക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് മാറ്റാനായിട്ടു വ കുറേ നാട്ടു വൈദ്യ വിദ്യകളുണ്ട് ഏറ്റവും നല്ലതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപഴം അല്ലേ അതിൻ്റെ കദളിപ്പഴം അങ്ങനെ കുറച്ച് പഴങ്ങൾ കഴിക്കാം എന്നുള്ളതാണ് എന്നിട്ടും മാറിയില്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ അയമോദകത്തിന്റെ ഇല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും മാറിയില്ലെങ്കിലാണ് പിന്നെ ഓ സീ ബി അല്ല ഒ സീ ഡി പൗഡര് അങ്ങനൊരു പൗഡറുണ്ട് അപ്പം അതുവാങ്ങി വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ അത് റെഡിയാകും എന്നിട്ടും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിയ്ക്കുകയാണ് നല്ലത് ഡോക്ടറെ കാണിക്കുക തന്നെയാണ് നല്ലതെപ്പോഴും പിന്നെ മറ്റേ വെളുത്തുള്ളി വെളുത്തുള്ളി ചുട്ടിട്ട് കടിച്ചു കഴിക്കണം കഴിക്കുക അരക്കാനൊന്നും പാടില്ല വെളുത്തുള്ളി ചുട്ടിട്ട് കടിച്ചിട്ട് കഴിക്കുക അതും നല്ലൊരു സംഭവമാണ് പിന്നെ പഴങ്ങൾ ചെറുപഴം കുറേ കഴിയ്ക്കുക കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുക ചൂടുള്ളതൊന്നും കഴിക്കാണ്ടിരിക്കുക എരിവുള്ളതൊന്നും കഴിക്കാണ്ടിരിക്കുക പിന്നേ പുളിയുള്ളത് കഴിയ്ക്കാണ്ടിരിക്കുക എപ്പോഴും മൈള്ഡായിട്ടുള്ള ഫ്ലേവറിൽ കാര്യങ്ങൾ കഴിയ്ക്കുക അതു മാറുന്നതു വരെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞമക്ക് വേറെ കഴിക്കാമല്ലൊ അപ്പോൽ അങ്ങനെ കഴിച്ചാൽമതി അതായിരിക്കും നല്ലത് പിന്നെ നാട്ടു വൈദ്യങ്ങളെന്നു പറയുമ്പോൾ ഈ പറഞ്ഞതു പോലെ ചൂടുള്ള കാര്യങ്ങൾ കഴിക്കാണ്ടിരിയ്ക്കുക മിക്കതൊഴിവാക്കുക തണവുള്ളതും ബാക്കിയുള്ളതൊക്കെ കഴിയ്ക്കുക അതാണ് ഏറ്റവും നല്ലകാര്യം പിന്നേ പിന്നെയുള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയല് ഇന്ഫെക്ഷനാകും അപ്പോൾ അത് അതിനാണീ വെളുത്തുള്ളി കഴിക്കണത് ഇഞ്ചീ നല്ലതാണ് പഷെ വെളുത്തുള്ളി ആണ് നല്ലത് പിന്നെ ഇഞ്ചിനീരുണ്ട് ഇഞ്ചി ചതച്ചെടുത്തിട്ടതിൻ്റെ നീര് അതു വെള്ളം പോലും ചേര്ക്കാണ്ട് അതു മാത്രമായി കുടിയ്ക്കുക അപ്പം നല്ലൊരു ആശ്വാസം കിട്ടും വയറൊക്കെ ഇങ്ങനെ കുറച്ച് കാളണ പോലെതോന്നും പിന്നതു മാറും അത് നല്ലൊരു സംഭവമാണ് പിന്നെ നല്ലത് പിന്നെ മറ്റേ ആ ചുക്കുപൊടി ചുക്കും ചുക്കുകാപ്പിയുണ്ടാക്കണ ചുക്കുപൊടി തിളപ്പിച്ചിട്ട് ചൂടോടെ തന്നെ കുടിയ്ക്കുക രാവിലെ എണീറ്റിട്ട് പിന്നെ വയറിളക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടു മൂന്നു ദിവസം രാവിലെ എണീറ്റപ്പംത്തന്നെ കുറച്ച് പച്ചവെള്ളം കുടിക്കണതും നല്ലതാണ് അങ്ങനെയും കുറേ ഞാന് കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നത്രയൊക്കെ തന്നെ വേറൊന്നും ഇപ്പോൾ കൂടുതൽ അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്